നൈനക്കാരുടെ ഓൺലൈൻ കൂട്ടായ്മകളിലൊന്നും ഞാൻ അംഗത്വം എടുത്തിട്ടില്ല കാരണം ഓൺലൈൻ ആയിട്ടുള്ള വായന എനിക്കത്ര താൽപര്യമില്ല അതുകൊണ്ടാണ് അതു കാരണം ഞാൻ എൻ്റെ അടുത്തുള്ള വായനശാലയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അവിടെപ്പോയി ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കുകയും അവിടെ ഒരു നിരന്ധരമായൊരു സംഭാഷണം എനിക്കുണ്ട് ഓൺലൈനായിട്ടുള്ള ആ വായന അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് വായന കൂട്ടായ്മയിലൊന്നും പങ്കെടുക്കാത്തത് നമ്മൾ വായനശാലയിൽ പോയി അവിടെ നിന്ന് പുസ്തകമെടുത്ത് വായിക്കുന്ന ആ ഒരു ഇതൊന്നും നമുക്ക് ഓൺലൈനായിട്ട് വായിച്ചാലോ അങ്ങനെയൊന്നും കിട്ടത്തില്ല അത് നമ്മൾ വായനശാലയിൽ പോയിരുന്ന് അവിടുത്തെ ആ അന്തരീക്ഷത്തിലിരുന്ന് ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് ഒറിജിനൽ ഫീല് നമുക്ക് കിട്ടുന്നത് ഈ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ നമ്മളിരുന്ന് വായിക്കുമ്പോൾ വേറൊരു ഫീലാണ് അത് നമ്മൾ വായനശാലയിൽ പോയിരുന്നാൽ അത് കിട്ടത്തില്ല വായനശാലയിലിരുന്ന് വായിക്കുന്ന ഫീല് നമ്മൾ മൊബൈലി ഇരുന്ന് കേട്ടാലും നമുക്ക് കിട്ടത്തില്ല അപ്പം പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കുമ്പോഴാണ് അതിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് ആ പുസ്തകത്തെയും ആ എഴുതിയ ആളെയും രചയിതാവിനെയും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ പുസ്തകങ്ങൾ അടുത്തിരുന്ന് വായിക്കുമ്പോഴാണ് അല്ലാതെ ഈ ഓൺലൈനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പലതരം നോട്ടിഫിക്കേഷൻസ് വരികയും അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ആയിപ്പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ നിന്ന് വഴുതി മാറാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം പുസ്തകങ്ങൾ നമ്മളെ കയ്യിലിരുന്ന് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്